ഇപ്പോൾ കൂടുതലായിട്ടും സ്ക്രീനിൻ്റെ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് പല രീതിയിൽ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണമെന്തെന്നു വച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മൊബൈലിൻ്റെ ഓരോ കാലങ്ങളും കാലഘട്ടങ്ങളൊക്കെയാണ് ഇപ്പോൾ പിന്നിട്ടുകൊണ്ട് ഇരിക്കുന്നത് കാരണം മൊബൈലിലൂടെ ഉള്ള ഗെയിം കളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം അപ്പോൾ പല രീതിയിലുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് സാധിക്കുന്നില്ല കാരണം ഇവർ എപ്പോഴും മൊബൈലിലൂടെയും പബ്ജി ഫ്രീ ഫയർ അങ്ങനത്തെ ഗെയിമുകളാണ് കൂടുതലായിട്ടും കളിക്കുന്നത് ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ അടക്കം ഇങ്ങനത്തെ ഗെയിമുകളാണ് കൂടുതലായിട്ടും കളിക്കുന്നത് അപ്പോൾ നമുക്ക് കുട്ടികളെ പ്രയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ചെയ്യുന്നത് എന്താ എന്നു വച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് കുട്ടികളെ പുറത്തേക്ക് കളിക്കാനൊക്കെ വിടുക ഫോണൊക്കെ മേടിച്ച് വെക്കുക ലാപ്ടോപ്പ് ഒന്നും അധികം കൊടുക്കാണ്ട് ഇരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അവർ കൂടുതലായിട്ടും പുറമേ ഉള്ള കളികളിലേക്കൊക്കെ ഏർപ്പെട്ടിരിക്കും ഇപ്പോൾ പറയാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ കളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും